ശാന്ത ഭവൻ ബേക്കറിയാണോ കേക്ക് വേണമല്ലോ എന്നത്തേക്കാണോ ഏപ്രിൽ ഒന്നിന് അര കിലോയുടെ മതി ഒരു പത്ത് അറുന്നൂറു രൂപയുടെ വൈകുന്നേരം മതി അഡ്വാൻസ് പകുതി തരാം

ആ അത് തന്നെ മതി എനിക്ക് ആ കേക്കാണ് എനിക്ക് വേണ്ടത് എത്ര പൈസ ആയാലും വേണം

ആ ഒന്നാം തീയതി മ് ഒന്നാം തീയതി വൈകുന്നേരം ആ കേക്കിന് മുകളിൽ പേര് എഴുതണം ഹാപ്പി ബർത്ത് ഡേ അനുശ്രീ പിന്നെ ബർത്ത് ഡേ കേക്കിന് പേര് എഴുതാതെ വെക്കുമോ ആരെങ്കിലും വേറെ ഒന്നും വേണ്ട ആദ്യം കേക്ക് തിന്നട്ടെ എന്നിട്ട് കൊണ്ടുവന്ന് തരുമല്ലോ അല്ലെ കൊണ്ടുവന്ന് തരുമോ കേക്ക് വീട് അമ്പലവയലിൽ പൈസ ഗൂഗിൾ പേ ചെയ്യാം കേക്ക് ഇവിടെ എത്തിച്ചാൽ മതി